കല്യാണം പോലെയുള്ള വലിയ വലിയ ചടങ്ങുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ കല്യാണ വീടുകളിൽ എന്ന് പറയുമ്പോൾ നമുക്കത് വീട്ടിൽ എന്തെങ്കിലും കോമണായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടാങ്ക് ഉണ്ടാകും ആ വീട്ടിൽ ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ വീട്ടിൽ വരുന്നവർക്ക് ബാത് റൂമിൽ പോകുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആ ടാങ്കിലെ വെള്ളം കൊണ്ട് തന്നെ ഉപയോഗിക്കും പക്ഷേ അതിന് വെപ്പ് പുര അതായത് ഭക്ഷണം ഉണ്ടാകുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് വരുന്നവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അങ്ങനെയുള്ള രണ്ടു മൂന്നു സ്ഥലങ്ങൾ ഉണ്ടാകും ആ സ്ഥലങ്ങളിൽ പക്ഷേ നമുക്ക് മോട്ടർ വീട്ടിലെ മോട്ടറിൽ ഉള്ള അടിച്ചിട്ട് കൊണ്ടുള്ള ആ ഒരു ടാങ്ക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ആ ഒരു ടാങ്കിലെ വെള്ളം കൊണ്ട് മാത്രം കാരണം ആ ഒരു ടാങ്ക് മാത്രമാകുമ്പോൾ എന്നു വെച്ചാൽ നമുക്ക് അത്രയേറെ വൈദ്യുതി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ

ഒരു സ്ഥലമുണ്ടാകും കല്യാണ വാടക സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം അപ്പം ആ സ്ഥലത്തു നിന്ന് നമ്മൾ ഈ മോട്ടറിൽ വെള്ളം അടിച്ച് വെയ്ക്കാൻ പാകത്തിനുള്ള ട്രമ്മുകൾ ബാനറുകളെന്നും പറയും ഇരുനൂറ്റി അൻപത് ലിറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് ലിറ്ററിന്റെയൊക്കെ വലിയ വലിയ ബാനറുകൾ കിട്ടും അത് വാങ്ങിയിട്ട് അതിലേക്കു അടിച്ചു വെക്കുകയാണ് ചെയ്യല് എന്നിട്ട് വെപ്പുപുരയിൽ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൈ കഴുകുന്നിടത്തൊക്കെ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിച്ചു വെക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോളെന്ന് വെച്ചാൽ അത് തീരാൻ എല്ലായിടത്തും നമ്മൾ തനി തനിയെ വെക്കും അവർക്കൊക്കെ അവിടെയൊക്കെ എന്നു വെച്ചാൽ സാ ആ ഒരു വെള്ളം തീരാനുള്ള ഒരു സമയമുണ്ട് അപ്പം മോട്ടോർ വൈദ്യുതീന്റെ ഉപയോഗവും അത്ര വരില്ല മോട്ടോർ ഒരു തവണ ചിലപ്പോൾ ഒന്നോ മൂന്നോ അഞ്ചോ ആറോ തവണ എന്തായാലും ഒരു കല്യാണവീട്ടിൽ അടിക്കേണ്ടി വന്നാൽ പോലും നമ്മൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം അത് ആ ബാനറിൽ ആകുമ്പോൾ നമ്മളത് സൂക്ഷിച്ചു വെക്കാനും അത് നമുക്ക് ഉപയോഗത്തിന് അനുസരിച്ച് ഉപയോഗിക്കാനും സാധിക്കും